ഹലോ ആ ഇത് സ്പാഗോ റെസ്റ്റോറൻ്റല്ലേ അ ഞാന് എൻ്റെ പേര് സയനാന്നാണേ അ ഞാനവിടുത്തേ മെയിൻ ഫുഡ് കേരള സ്റ്റൈൽ ഫുഡ് എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ് അ എന്തൊക്കെയാണ് അവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റംസ് കാര്യങ്ങള് ആണോ ഓക്കേ ഓക്കേ സദ്യയിലെന്താണ് സ്പെഷ്യൽ ഐറ്റംസായിട്ടുള്ളത്

പിന്നെ നോൺവെജായിട്ട് സദ്യയില് എന്തെങ്കിലും വരുന്നുണ്ടോ അ അ അവിടെ ഈ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ അങ്ങനെ പുഴമീൻ അങ്ങനെന്തെങ്കിലൊക്കെയുണ്ടോ അതെയോ അതെ ഓക്കേ ഓക്കേ പിന്നെ ഈ എന്താ പിടിയോ

അ ക്രിസ്ത്യൻസിൻ്റെലേ അവിടത്തെ അ അ

ആണോ ഓക്കേ പിന്നേ അവിടെ ഈ കപ്പയൊക്കെ എങ്ങനെയാണ് കപ്പേൻ്റെ കൂടെ എന്താണ് സ്പെഷ്യലായിട്ടുള്ള കറികളൊക്കെ വരുന്നത് നോൺവെജ് തന്നെയല്ലേ വരുന്നത്

അ ഓക്കേ ഓക്കേ മാം ഇത് ഉച്ചക്കെല്ലാം ഒക്കെ ഉണ്ടാകുമോ

അ അതെ ഓക്കേ ഓക്കേ താങ്ക്യൂ അ എനിക്ക് സദ്യ മതി അ രണ്ട് കൂട്ടം പായസം കൂടി ഉണ്ടാവില്ലെ

ഞാൻ അടുത്ത സാറ്റർഡേ വരും ട്വൻറ്റി എയിറ്റിന് അ ശരി ഓക്കേ ഓക്കേ